കേരളത്തിലെ ആൾക്കാർ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു

ഒരു ആഹാരമാണ് ആഹാരം ആണ് മത്സ്യമെന്ന് പറയുന്നത് മത്സ്യത്തിന് സാധാരണ നാട്ടിൻ പുറങ്ങളിൽ കുളങ്ങളുണ്ടാക്കി വളർത്തി അതുപോലെ നദികളിൽ മത്സ്യങ്ങളെ പിടിക്കുകയും ചെയ്യുന്ന രീതിയുണ്ട് നാട്ടിൻ പ്രദേശത്ത് കുളങ്ങൾ ഉണ്ടാക്കി വെള്ളം ശേഖരിച്ച് അതിൽ മത്സ്യ കുഞ്ഞുങ്ങളെ നിക്ഷേപിച്ച് തീറ്റ കൊടുത്ത് വളർത്തി ഒരു ചെറുകിട വ്യവസമായി വളർത്തുന്ന രീതിയും നമ്മുടെ നാട്ടും പ്രദേശത്തുണ്ട് സാധാരണയായി ഈ കുളങ്ങളിൽ വളർത്തുന്ന മത്സ്യം എന്ന് പറയുന്നത് സിലോപ്പിയ ചെമ്പല്ലി പള്ളത്തി ചേറു മീനുകൾ ഇവയൊക്കെയാണ് ഇതിനെ സുലഭമായി ലഭിക്കാത്തത് കൊണ്ട് കടലിനെ ആശ്രയിച്ചാണ് കടൽ മത്സ്യങ്ങളെ ആശ്രയിച്ചാണ് നമ്മുടെ കേരളക്കാർ മത്സ്യ ആഹാരങ്ങൾ കഴിക്കാറുള്ളത് നാട്ടിൻ പ്രദേശത്ത് കാണുന്ന കുളങ്ങളിലും നദികളിലും നിന്നും ലഭിക്കുന്ന മത്സ്യങ്ങൾക്ക് സാധാരണ ഇരുന്നൂറ് മുതൽ മുന്നൂറ് രൂപ വരെ അതുപോലെ വാള വരാൽ കാരി ഈ വക മത്സ്യങ്ങൾക്ക് അതിൽ കൂടുതലും വില ലഭിക്കുന്നുണ്ട് പക്ഷേ സാധാരണയായി ഇവിടെയുള്ള നാട്ടിൻപ്പുറത്തുള്ള കേരളക്കാർ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന മത്സ്യം എന്ന് പറയുന്നത് കടലിനെ കടലിലെ മത്സ്യങ്ങളെയാണ് കടലിലെ മത്സ്യം ചെറുതും വലുതുമായി ധാരാളം ലഭ്യമാണ് അതിന് നൂറ് രൂപ മുതൽ തൊള്ളായിരം രൂപ ആയിരം രൂപ വരെ കിലോയ്ക്ക് വിലയുള്ള മത്സ്യങ്ങൾ ഉണ്ട് അതുപോലെ ഇഷ്ടപ്പെടുന്ന ഒന്നാണ് കൊഞ്ച് തെരണ്ടി അതുപോലെയുള്ള മത്സ്യങ്ങൾ ഞണ്ട് ഞണ്ടിനെ മത്സ്യത്തിൻ്റെ വിധത്തിൽ കൂട്ടാൻ പറ്റുന്നതല്ലെങ്കിലും ഞണ്ടും ധാരാളമായി ഇക്കാലത്ത് ലഭിക്കുന്നുണ്ട് സാധാരണഗതിയിലെ ഈ വളര്ത്തു മത്സ്യങ്ങൾ ആണ് നാട്ടിൻ പുറങ്ങളിലും ലഭ്യമാണ് അതിനു വില കുറവുണ്ട് എല്ലാവർക്കും വാങ്ങാവുന്നതും ആണ് എന്നാൽ കടൽ മത്സ്യങ്ങൾ നമ്മുടെ പരിസരങ്ങളിൽ സുലഭമായി ലഭിക്കുന്ന ഒന്നാണ് എല്ലാ കവലകളിലും ചന്തകളിലും പൊതുസ്ഥലങ്ങളിലും സുലഭമായി വിൽക്കപ്പെടുന്ന ഒന്നാണ് കടൽ മത്സ്യങ്ങൾ അതുകൊണ്ട് നമ്മുടെ ആൾക്കാർ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നത് കടൽ മത്സ്യങ്ങളെയാണ്